നമ്മൾ ഇപ്പം മലയാളം പഠിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ മലയാളം നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ തൊട്ടു തന്നെ നമ്മൾ മലയാളം പഠിക്കുന്ന ഒരാളാണ് കാരണം എന്താണെന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ച അവിടം മുതൽ തന്നെ നമ്മൾ കേട്ട് വളരുന്ന ഒന്നാണ് മലയാളമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ഭാഷയാണ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാലമ്മ ആദ്യമായിട്ട് പറയുന്നത് മോനേയെന്നൊക്കെ ആയിരിക്കും ചിലപ്പം വിളിക്കുന്നത് അപ്പം അതൊക്കെ മലയാളം ഭാഷ ആയിട്ടാണ് മാറിയിരിക്കുന്നത് അപ്പം അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് പഠിച്ചു വരുന്ന ഒന്നാണ് മലയാളമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് അവരോടൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയണ്ട കാര്യങ്ങൾ തന്നെയില്ല അപ്പം അതൊക്കെ ഒന്നാമത് മലയാളം പഠിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് മാറാം പിന്നെ നമ്മൾ നല്ല രീതിയിലുള്ള വിദ്യാഭാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഹരി ശ്രീയും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിക്കുന്നത് അപ്പം അത് അതിലൂടെ തന്നെ നമ്മൾ മലയാളം ഭാഷക്ക് തുടക്കമിട്ടുവെന്ന് വേണമെങ്കിൽ പറയാം ഹരിശ്രീ എഴുതിയിട്ടാണ് കൂടുതലാൾക്കാരും എഴുത്തിനൊക്കെ ഇരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുന്നുള്ളൂ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾത്തന്നെ മലയാളവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്